ഞങ്ങളുടെ പ്രദേശത്ത് കൗൺസിലിംഗ് സെൻറ്ററുണ്ട് സെ ഒരു ധ്യാന കാര്യസൊവാൻ എന്ന് പറഞ്ഞ ഒരു ധ്യാന സെൻറ്ററുണ്ട് അപ്പോൾ ഇങ്ങനെ ആത്മഹത്യാ പ്രവണതയൊക്കെ വ ആ വക്കത്ത് വരുന്ന മനുഷ്യരുടെ സക അവർ ഒന്ന് അവരുടെ വിഷമതകളൊക്കെ പറയുമ്പം അവർക്ക് അതിനുള്ള പ തക്ക പരിഹാരം അവർ പറഞ്ഞ് കൊടുക്കും അത് ഈ കൂടുതലും ഇങ്ങനെ കുടുംബശ്രീ വഴിയും ബാങ്ക് ലോൺ വഴിയാണ് കർഷകർ കൃഷി ഇറക്കാനുള്ള പൈസാ കണ്ടെത്തുന്നത് അപ്പം കാലാവസ്ഥ അനുകൂലം അല്ലാതാകുമ്പോഴത്തേക്ക് അവരുടെ കൃഷി നശിച്ച് പോകും ഒരു കാറ്റും മഴയും വന്ന് കഴിഞ്ഞാൽ ഒരു വാഴ കൃഷിയാണെ ആ വാഴ കുലക്കാറായ വാഴയാണെ അത് മുഴുവനും അത് ഒടിഞ്ഞ് പോകും അതുപോലെ നെല്ല് അതും വെള്ളം ഒരു മഴ മഴ വന്ന് ചിലപ്പോൾ ചില സമയത്ത് കതിരും നമ്മൾ കൊയ്യാറാകുന്ന സമയത്തായിരിക്കും ചിലപ്പം ഭയങ്കരമായ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ന്യൂനമർദ്ദമാണെന്നും പറഞ്ഞ് ഒരു കാലാവസ്ഥക്ക് ഒരു വ്യത്യാസം വരുന്നത് അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ മനുഷ്യരുടെ കൃഷിയെല്ലാം നശിച്ച് പോകും അപ്പം പിന്നെ അവർക്ക് ബാങ്കിൽ തിരികെ കൊടുക്കാൻ തിരികെ അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ വരുമ്പം അവർ കട കടക്കെണിയിൽപ്പെടും അത് നമ്മൾ നമ്മൾ ബാങ്കിൽ അല്ലെ നമ്മൾ എവിടെ ലോണെടുത്തെന്ന് അവിടെ ചെന്ന് പറഞ്ഞാലൊന്നും അവർക്ക് അവിടെ നിന്ന് അതിനുള്ള പരിഹാരം ഒന്നും അല്ലെങ്കിൽ സാവകാശവും കിട്ടുകയില്ല അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും മനുഷ്യർ ആത്മഹത്യയ്ക്ക് ആ തുനിയുന്നത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇവരിങ്ങനെ ആരെങ്കിലും പറയും ഇന്നടുത്ത് ചെല്ല് പോ അവിടെ ചെന്ന് അല്ലെ പറ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് ഓർത്ത് ചിലർ സ്വയം അങ്ങനെ ധ്യാന സ ഒരു കൗൺസിലിംഗിനായിട്ട് പോകും ചിലർ മറ്റുള്ളവരുടെ പ്രേരണയിൽ പോകും ചിലർ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ ആത്മഹത്യയ്ക്ക് തുനിയും